നമ്മൾ എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴോ അല്ലാതെ അറിയാത്തൊരു സ്ഥലത്ത് പെട്ടന്ന് എത്തിപ്പെട്ടാലോ നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പരിചയക്കാരാരുമില്ല നമുക്ക് വാഹനമില്ല കൊണ്ടാക്കാനാരുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഊബറിൻ്റെ സഹായം തേടാനും ഒക്കെ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് സാധിക്കുന്നത് നമുക്കിപ്പോൾ എവിടെ ഏത് റൂറൽ ഏരിയയിൽ ചെന്നാലും ഊബറിൻ്റെ സഹായത്തോടെ നമുക്ക് ഓൺലൈനായിട്ടപ്പം റെയ്ഞ്ചുണ്ടെങ്കിൽ ബുക്ക് ചെയ്തിട്ട് ഊബറിൻ്റെ സഹായത്തോടെ നമുക്കെവിടെയാണോ പോകാൻ അവിടെ പോകാൻ സാധിക്കുന്നതാണ് അതേപോലെതന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്തതായിട്ടുള്ള ദിവസങ്ങളിലെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ടിക്കറ്റ് നമുക്കിപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും ട്രെയിനായിക്കോട്ടെ ബസ്സായിക്കോട്ടെ ഹോട്ടലായിക്കോട്ടെ എവിടെ വേണമെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അത് അത് വളരേ വളരെ പ്രയോജനകരമായ കാര്യമാണ് കാരണം ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയി ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഫേർട്ടാണ് കാരണം നമ്മൾ പോയി ബുക്ക് ചെയ്യാൻ നേരത്ത് അവിടെ അവൈലബിളാണോ എന്നൊന്നും നോക്കാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഫോണിലാണെങ്കിൽ അവൈലബിളാണോ എന്നാദ്യം നോക്കാം എന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇത് നമ്മുടെ പൈസ ലാഭം നമ്മുടെ സമയലാഭം എല്ലാം ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റായി എല്ലാ മെത്തേഡും ഇപ്പം യാത്ര മാത്രമല്ല നമുക്ക് ഹോട്ടൽ ബുക്കിങ്ങാണെങ്കിലും അതോ ട്രെയിനുണ്ടോ ബസ്സുണ്ടോയെന്ന് നോക്കാനാണെങ്കിലും പല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാണെങ്കിലും ഇപ്പം നമുക്ക് കാലാവസ്ഥയാണെങ്കിലും നമുക്ക് നാളെ റെയ്നാണോ നാളെ അല്ലങ്കിൽ നാളെ ഒരു സണ്ണി ഡേയാണോ എന്നൊക്കെ അറിയാൻ ഇതിൽ നിന്ന് ഒരുപാട് നമുക്ക് ഹെൽപ്പിങ്ങായിട്ടുണ്ട് അതേപോലെതന്നെ നമുക്ക് വീഡിയോസ് കാണാൻ നമ്മൾ ബോറടിച്ച് ഇരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് എൻ്റർറ്റൈൻമെൻ്റ് പർപ്പസിന് വേണ്ടി വീഡിയോ കാണാനാണെങ്കിലും നമുക്ക് ഭയങ്കര കൺവീനിയൻ്റാണിതെല്ലാം സോ സാങ്കേതിക വിദ്യയുടെ ഒരു സഹായമില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഡെയ്ലി ലൈഫ് കുറച്ച് കൂടി ഈസിയായി ഈ സാങ്കേതിക വിദ്യ കാരണം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടി സഫർ ചെയ്യേണ്ടി വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പല കാര്യത്തിനും ഇപ്പോൾ സ്വന്തമായി ഫോണില്ലാത്തൊരാൾ വളരെ കുറവാണ് കാരണം ഫോണെന്നുള്ളത് നമ്മുടെ ഡെയ്ലി ലൈഫിനെ ഭയങ്കര ഈസിയാക്കുന്നൊരു ഘടകമായി മാറിയിരിക്കുകയാണ് ഫോണില്ലാതെ തന്നെ നമുക്ക് വെതറാണങ്കിലും ടിക്കറ്റാണെങ്കിലും എന്താണങ്കിലും നമുക്ക് ഫോണിലുടനടി നമുക്ക് റെസ്പോണ്ട് കിട്ടുകയും നമുക്കറിയാൻ സാധിക്കുകയെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫോൺ നമുക്ക് ഒരു എന്താ എസ്സെൻഷ്യൽ ഘടകമായി മാറിയിരിക്കുകയാണ് സാങ്കേതിക വിദ്യയുടെ സഹായമാണ് അതിൽ പ്രകടമാകുന്നത്